പഴയകാല ഭക്ഷണ പാചകം തന്നെയാണ് നല്ലത് നമ്മളടുപ്പ് കത്തിച്ച് ഭക്ഷണം പാചകം ചെയ്യുമ്പോള് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വാദുകൾ രുചികളൊക്കെ ഉണ്ട് നമ്മൾ സ്പീഡിന് വേണ്ടി നമ്മൾ ഗ്യാസ് സ്റ്റൗവ്വുകളൊക്കെ ഉപയോഗിക്കുമ്പോള് നമ്മുടെ ഭക്ഷണത്തിന്റെ രുചികൾ തന്നെ ചിലപ്പം മാറാന് മാറാന് സാധ്യതയുണ്ട് പിന്നെ ഞാന് കൂടുതലും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്കായാലും ഞാനായാലും കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ട് വീട്ടിലുണ്ടാക്കുന്ന ഭഷ്ണങ്ങളാണ് കൂടുതലും ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ പുറത്തോട്ടു വല്ലതും പോവുമ്പം മാത്രം ചിലപ്പം അത്യാവശ്യം വാങ്ങിച്ച് കഴിക്കുമെന്നല്ലാതെ ഞങ്ങൾ ഓഡറ് ചെയ്താൽ അല്ലെങ്കിൽ ഓഡറ് ചെയ്തോ ഒന്നും ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാറില്ല ഏറ്റവും നല്ല ഫുഡ്ഡെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഫുഡ്ഡ് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ രോഗം നമ്മൾ പലവിധ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തേയും നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം നമുക്ക് ഇതില്നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കും